ഞാൻ മിനിഞ്ഞാന്ന് ഒരു മഴ ദിവസം ഫുഡ് മേടിക്കാൻ വേണ്ടി ഞാൻ പോകുകയായിരുന്നു ആ ജോസ് കിച്ചണെന്നു പറഞ്ഞ കടയിലേക്കു ഞാൻ മേടിച്ച ഫുഡ് എന്നു പറഞ്ഞാൽ പൊറോട്ടയും ബീഫ് കറിയുമായിരുന്നു ഞാനവിടെ മേടിക്കാൻ പോയേക്കുകയായിരുന്നു അപ്പോൾ മഴ സമയം കൊണ്ടു ഞാൻ വിചാരിച്ചു ആ ഒരു ഫുഡ് തണുത്തു പോകും തണുത്തു പോട്ടെയെന്നു വിചാരിച്ചു പക്ഷേ അവർ നല്ല രീതിയിൽ അവർ എനിക്ക് സെർവ് ചെയ്തു തരികയും നല്ല ചൂടോടെ തന്നെ ഞാനാ ഫുഡ് കഴിക്കുകയും ചെയ്തു അവരുടെ സെർവിങ്ങും അവരുടെ ഫുഡ്ഡും നല്ല ടേസ്റ്റ് ആയിരുന്നു അവർ ഒരു രീതിയിലുള്ള മായമോ ഒന്ന് ഒന്നും ആ ഒരു ഫുഡ്ഡിൽ ചേർത്തിട്ടില്ല